നമ്മുടെ സ്ഥലത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കൈത്തറി വ്യാപാരസ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് ബാലരാമപുരം അവിടെ ധാരാളം കൈത്തറി വസ്ത്രങ്ങളൊക്കെ നിർമ്മിക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ പിന്നെ അവിടെനിന്ന് വാങ്ങിക്കുന്ന കൈത്തറി ഡ്രസ്സുകൾ കൈത്തറിയുടെ ഡ്രസ്സുകൾ വളരെ നല്ല കോളിറ്റി ഉള്ള നല്ല ഡ്രസ്സുകളൊക്കെയാണ് അപ്പോൾ അവിടെനിന്ന് സാരിയും പിന്നെ അതുപോലെ തന്നെ ഷർട്ടിൻ്റെ തുണികൾ നമ്മുടെ ഒരുപാട് മെറ്റീരിയൽസ് കൈത്തറി വസ്ത്രങ്ങൾ അവിടെനിന്ന് പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ അവിടെനിന്ന് കൊണ്ട് ഹോൾസെയിൽ ആയിട്ടുള്ള കടകളൊക്കെയാണ് അവിടെ അവിടെ പരമ്പരാഗതമായി ആൾക്കാർ അവിടെ ഇരുന്ന് നെയ്താണ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടു പോകുന്നത് അപ്പം അവിടെനിന്നുള്ള സാരികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ബാലരാമപുരം കൈത്തറി എന്നുള്ള സാരികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വളരെ നല്ല ക്വാളിറ്റി ഉള്ള സാരിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സർക്കാർ തന്നെ സ്കൂളുകളിൽ ഒരു ദിവസം ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം കുട്ടികൾക്ക് ഖാദി വസ്ത്രം നിർബന്ധം ആയിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ഓർഡർ ഒക്കെയുണ്ട് അപ്പോൾ എല്ലാ സ്കൂളുകളിലും ഒരു ദിവസം ഖാദി വസ്ത്രം ആണ് കുട്ടികൾ ഇടുന്നത് പിന്നെ നമ്മുടെ ഖാദി വസ്ത്രങ്ങളുടെ ഇത് കൂട്ടു ഇത് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇതൊക്കെ കൊണ്ടു വന്നിട്ടുള്ളത്